അതെ ആരാണ് വിളിക്കുന്നത് ആ എത്ര കെ ജി വരെ ആയിരുന്നു ഏതാണ് വൈറ്റാണോ ബ്ലാക്കാണോ റെഡ്ഡാണോ ഏത് ഫ്ലേവറാണ് വേറെ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻസ് എഴുതാനുണ്ടോ സ്ട്രോബെറി അവൈലബിൾ ആണ് ഓക്കേ ഓക്കേ

സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൻ ഉണ്ട് ബിരിയാണി ഐറ്റംസ് എല്ലാം ഉണ്ട് ഫ്രൈഡ് റൈസുണ്ട് ഡെസേർട്ടുണ്ട് എല്ലാം എല്ലാംതന്നെ ഉണ്ട് ഓക്കേ എത്ര എണ്ണം വേണം

ഓക്കേ ഓക്കേ ആ ടൈം എപ്പോളാണ് ഉം ഓക്കേ അതിൻ്റെ കൂടെ വേറെയെന്തെങ്കിലും സ്റ്റാർട്ടറായിട്ട് എല്ലാ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് വെൽക്കം ഡ്രിങ്കായിട്ട് ഏറ്റവും കൂടുതൽ സോൾഡൗട്ടായി പോകുന്നത് പൈനാപ്പിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് അത് എത്ര എണ്ണം അത് എത്ര എണ്ണം വേണം

ആ ഓക്കേ വേറെയെന്തെങ്കിലും ഓക്കേ ചായ് ചാ ഫ്ലേവർ ഏതാണ് ഏലക്ക അതാണോ വേണ്ടത് അതോ വേറെ എന്തെങ്കിലും ആ ഉണ്ട് ഉണ്ട് ഓക്കേ

ഉവ്വ് ആ ഓക്കേ എന്നാൽ ഇട്ടോളാം ആ വേറെയെന്തെങ്കിലും അത് ഏത് റേഞ്ച് ആണ് അഞ്ചിൻ്റെ ആണോ പത്തിൻ്റെ ആണോ എത്ര എണ്ണം വേണം സെയിം റേയ്റ്റ് അൻപത് തന്നെ ആണോ ഓക്കേ ഓക്കേ മാം ഇതിനെ കുറിച്ച് പത്ത് ഇപ്പോൾ മാം ഓർഡർ ചെയ്തതിന് ടെൻ പേസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കേ മാം ഇവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്യണോ അതോ ഞങ്ങൾ ആളെ വിട്ട് അവിടെ എല്ലാം സെറ്റാക്കണോ ഓക്കേ ദേ ഇല്ലില്ല വേറെന്തെങ്കിലും ആവശ്യം ഉണ്ടോ മ്മ് വേറെ ആ ഹലുവ ഹലുവ മതിയോ ഏത് ഫ്ലേവർ ആയിരുന്നു ഉണ്ട് ഉണ്ട് ലഡു വേണോ ലഡു വേണോ ഓക്കേ വേറെ എന്തെങ്കിലും ഉം മാം ഇത് കേ ആ കേ കാൻഡിൽസാണോ പച്ച കേക്കിന് വയ്ക്കുന്നതിന് ആ ഓക്കേ എന്നാൽ മാം വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ബലൂൺസ് വേണോ പോ പാർട്ടി ബോംബ് വേണോ അതൊരു പാക്കറ്റ് ആ പാക്കറ്റ് ഉം പാക്കറ്റിന് ഇപ്പോൾ ഡിസ്കൗണ്ട് ഉള്ളത് ഉണ്ട് നൂറ്റി ഇരുപത് രൂപ അതിന് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ അതെ ഇപ്പോൾ എല്ലാം കൂട്ടി ആയതുകൊണ്ട് ഒരു ഫോർട്ടിഫൈവ് തൗസൻഡായിട്ടുണ്ട് നാൽപ്പത്തയ്യായിരം രൂപയായിട്ടുണ്ട് ഓക്കേ ഓക്കേ അത് ഡിസ് ഡിസ്കൗണ്ടോണ്ടായിരുന്നു അത് കുറച്ചിട്ടാണ് നാൽപ്പത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞത് ഓക്കേ ഷാർപ്പ് ആറു മണിക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാം ഓക്കേ മാം ഓക്കേ താങ്ക്യൂ